അപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നതിനാൽ ദിവസേന വീഡിയോ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കേണ്ടതുണ്ട് അതിനാൽ തടസ്സങ്ങൾ ഒഴിവാക്കാൻ നിങ്ങളുടെ ഡേറ്റ് പരിശോധിക്കാൻ ഞങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഓപ്പറേറ്റർ വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്നതുപോലെ അപ്പം വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നതിനാൽ ദിവസേന വീഡിയോ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കേണ്ടതിനാൽ തടസ്സങ്ങൾ നിങ്ങളുടെ ഡേറ്റും പരിശോധിക്കാനായി നിങ്ങളുടെ വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്നതുപോലെ നിങ്ങൾ നമുക്കെന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ജോലി ചെയ്തു കൊണ്ടുതന്നെ ദിവസവും വീട്ടിൽ നിന്ന് ഒരുപാട് ജോലികളും നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ ഇത്രയും ജോലികളൊക്കെ ചെയ്തു തീർക്കുകയെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പറ്റുന്ന കാര്യമല്ല അപ്പോൾ അതുകൊണ്ടുതന്നെ എന്തു ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നു ദിവസേന വീഡിയോ മീറ്റിംഗുകളിൽ പങ്കെടുക്കാനുണ്ട് അപ്പോൾ ആ തടസ്സങ്ങൾ ഉപയോഗിക്കാനായിട്ട് നമ്മുടെ ഡേറ്റ ഉപയോഗം പരിശോധിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു ഫോണിൻ്റെ ഡേറ്റ ഉപയോഗം പരിശോധിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു ഇപ്പോൾ മൊബൈൽ ഓപ്പറേറ്ററ് അവനവൻ്റെ മൊബൈൽ ഓപ്പറേറ്ററെന്നു പറയുന്നത് ജിയോയാണ് അപ്പോൾ ഈ മൊബൈൽ ഓപ്പറേറ്ററ് വെബ്സൈറ്റ് ആക്സസ് ചെയ്ത് ഓപ്പറേറ്റർ ആക്സസ് ചെയ്യുന്നു എന്നിട്ട് നമുക്ക് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ എന്തൊക്കെ ഡേറ്റാസാണ് ഏതൊക്കെ രീതിയിലാണ് ഉപയോഗിക്കാൻ സാധിക്കുക ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് വീഡിയോ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതുകൊണ്ടുള്ള തടസങ്ങൾ ഒടിവാക്കാനായിട്ട് ഈ ഉപയോഗം പരിശോധിക്കുന്നതിനുവേണ്ടി വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്നു അപ്പം എന്നാന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ ഓപ്പറേറ്ററ് ജിയോയാണ് വെബ്സൈറ്റ് ആക്സസ് ചെയ്തിട്ട് നമ്മുടെ വെബ്സൈറ്റ് ആ വെബ്സൈറ്റ് ആക്സസ് ചെയ്തിട്ട് നമ്മുടെ ഫോൺ എടുക്കുന്നു നമ്മുടെ ഫോൺ എടുത്തിട്ട് നമ്മുടെ ഫോണിനകത്തത് ഓരോ കാര്യത്തിനും വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഡേറ്റാ എന്ത് ഏത് സാഹചര്യത്തിലൊക്കെയാണ് ഡേറ്റ ഉപയോഗിക്കപ്പെടുന്നത് എന്തോരും കൂടുതലാണ് ഉപയോഗിക്കുന്നത് അങ്ങനെയൊക്കെ നോക്കിയിട്ട് അപ്പം എന്താ വെച്ചാല് നമ്മള് വീട്ടിൽ നിന്നാണ് നമ്മുടെ ജോലികൾ കമ്പ്ലീറ്റ് ചെയ്തു തീർക്കുന്നത് അപ്പം അതുകൊണ്ടുതന്നെ

അപ്പോൾ ഓരോന്നിനും എത്ര എത്ര ഡേറ്റാ വെച്ചാവും കുറച്ചു കഴിയുമ്പോൾ ഡേറ്റ തീർന്നു പോവുമല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മുടെ ഡേറ്റയുടെ ഉപയോഗം ഓരോന്നിനും എത്രയാവുന്നു വീഡിയോ കോളിനെത്രയാവുന്നു അല്ലെങ്കിൽ പിന്നെ നമുക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടെത്ര ഡേറ്റയാവുന്നു നമുക്ക് നെറ്റും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടെത്ര ഡേറ്റ ആവുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് അപ്പം ജിയോ ഓപ്പറേറ്ററ് വെബ്സൈറ്റ് ആക്സസ് ചെയ്ത് നമ്മുടെ ഒരു ഡേറ്റയെ കുറിച്ചുള്ള പഠനം നടത്തുന്നു ഏതൊക്കെയാണ് എപ്പോഴൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഡേറ്റാസ് ഉപയോഗിക്കേണ്ടി വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നു എന്നിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള വഴി പറഞ്ഞുതരുന്നു എന്തൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ ഡേറ്റയുടെ ഉപയോഗം വരുന്നത് ഏതൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് ഡേറ്റയുടെ ഉപയോഗം കുറച്ചാവുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നമുക്ക് വിശദമായിട്ടുള്ളൊരു ഡേറ്റയുടെ ഉപയോഗം നമ്മുടെ ഡേറ്റാ ഓപ്പറേറ്ററ് അതായത് ജിയോ നമുക്ക് തരുന്നുണ്ട് തന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നൊരു ഡേറ്റാ വീഡിയോ കോളിൽ വിളിക്കാനായിട്ടൊക്കെ ഡേറ്റാ ഇത്രത്തോളം ചിലവാകുന്നതനുസരിച്ച് നമുക്ക് മാറ്റി വെക്കാനായിട്ടൊക്കെ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെയൊരു വിലപ്പെട്ട ഒരു കാര്യമെന്നു പറയുന്നത് കാരണം നമുക്ക് എന്തോരും ഡേറ്റ വീഡിയോ കോളിൽ എന്തോരും ഡേറ്റയാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമുക്ക് ഡേറ്റാ ബാലൻസ് ചെയ്തിട്ട് ബാക്കിയുള്ള ഡേറ്റാ മെസ്സേജ് അയക്കുന്നതിനും വേറെ കോളുകൾ വേറെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് വെബ്സൈറ്റ് ആക്സസ് ചെയ്ത് ഉപയോഗിക്കുന്നതിനാണ് നമുക്ക് സാധിക്കുന്നത് അതൊന്നുമൊരു പ്രശ്നമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ഡേറ്റാസ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ വാസ്തവം